ഹലോ സ്വിഗ്ഗി ഡെലിവറി ആപ്പ് അല്ലേ ഹോട് ഞാൻ സിഗ്ഗി വഴി ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർഡർ ചെയ്തിട്ട് സമയം ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു പക്ഷേ ഇത് വരെ ആയിട്ട് ഫുഡ് എത്തിയിട്ടില്ല ഞാൻ താമസിക്കുന്നത് ശ്രീകാര്യം ചെറുപുഴയ്ക്കൽ അതായത് ലോയോള സ്കൂളിൻറെ അടുത്താണേ പക്ഷേ അവർ സമയം കാണിക്കുന്നത് ഫോർട്ടി ഫൈവ് മിനുട്സ് എന്നാണേ ഇപ്പോൾ ഫോർട്ടി മിനുട്സ് കഴിഞ്ഞു ഒരുമണിക്കൂറും കഴിഞ്ഞു ഫുഡ് ഇതുവരേക്കും എത്തിയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആ ഹോട്ടലിലേക്കൊന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇവിടെ പാരഗൺ റസ്റ്റോറൻറിലേക്കാണ് ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് സ്വിഗ്ഗി എന്ന് പറഞ്ഞ ആപ്പ് വഴി അപ്പോൾ എനിക്കത് എത്ര ടൈം എടുക്കും ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും എന്നാലും നമുക്കൊരു പറയുന്ന സമയം അനുസരിച്ച് നമുക്ക് ഫുഡ് വീട്ടിൽ എത്തിക്കേണ്ടേ ഡോർ ഡെലിവറി എന്നല്ലേ നിങ്ങൾ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഒത്തിരി ടൈം കഴിഞ്ഞല്ലോ ആ ആ ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് ഫുഡ് നുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഒരു ഫംഗ്ഷൻ ആണേ അപ്പോൾ അത് എനിക്ക് ഫുഡ് കറക്റ്റ് ടൈമിൽ നമുക്ക് സെർവ് ചെയ്യേണ്ടേ അപ്പോൾ അത് എനി എത്ര നേരം എടുക്കും ഫുഡ് വരാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് അത് ഫുഡ് കാൻസൽ ചെയ്തിട്ട് വേറെ ഹോട്ടലിൽ നിന്ന് വേറെ ഓർഡർ ചെയ്യാൻ പറ്റു അല്ലെങ്കിൽ നമുക്കത് ഞാൻ അത് കാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് റീഫണ്ട് തരുമോ ആ അതാണ് ഇത് ഒ നമുക്ക് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം ഉള്ള ഒരു ഹോട്ടലിൽ നിന്നല്ലേ നമുക്ക് ശരിക്കും ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സാധാരണ എപ്പോഴും പാരഗൺ റസ്റ്റോറസ്റൻറിലാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതേ ആ പക്ഷേ അത് എന്താണ് അത് മാക്സിമം നമുക്ക് എത്തിക്കാറുണ്ട് പക്ഷേ ഇന്ന് എന്താണ് പറ്റിയത് മഴ ആയതുകൊണ്ടാണോ നമുക്ക് ഇപ്പം നല്ല റെയിനി സീസൺ അല്ലേ അത് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു പത്തോ പതിനഞ്ചോ മിനുട്ട് ലേറ്റ് ആവുവാണെങ്കിൾ കുഴപ്പം ഇല്ല പക്ഷേ ഇത് അങ്ങനെ അല്ലല്ലോ നമുക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് ഫോർട്ടി ഫൈവ് മിനിട്ട്സ് ആണ് പക്ഷേ എത്തിക്കാൻ നമുക്ക് ഇത്രയും ടൈം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കാൻസൽ ചെയ്തിട്ട് വേറെ എന്ന് പറയുമ്പം നമുക്ക് ഗസ്റ്റ് ഉണ്ട് ആ ഫുഡ് നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഫുഡ് ഓർഡർ ചെയ്യാം എനിക്ക് ഫണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി വേണ്ടല്ലോ അപ്പോല ഉറപ്പാണല്ലോ ടെൻ മിനിറ്റ്സിനകത്ത് ഫുഡ് കൊണ്ടെത്തിക്കുമോ ഓക്കെ ഓക്കെ ആ നിങ്ങൾ മെഡിക്കൽ കോ ഉള്ളൂർ കേശവസ്വരം കീഴിൽ വന്നാൽ മതി അതാവുമ്പോൾ എളുപ്പാണ് കേശവൻസ്വരം ആവുമ്പോൾ അധികം ബ്ലോക്ക് ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാമല്ലോ എന്നെ ശ്രീകാര്യം ലൊയോള സ്കൂൾ എത്തുമ്പം വിളിച്ചാൽ മതി അപ്പം ഞാൻ ഗൈറ്റിൻറെ അവിടെ ഇറങ്ങി വന്ന് നിൽക്കാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു